മേഡം മേയ് ഐ കം ഇൻ മാഡം എനിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണായിരുന്നു ആ അപ്പോൾ ആ വേറേ ഏത് അക്കൗണ്ടാണ് ഉള്ളത് എനിക്ക് അങ്ങനെ ഇത് വലിയ പിടിത്തം ഒന്നും ഇല്ല എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ആധാർ കാർഡും മറ്റെ പാൻ കാർഡും ആണ് ഉള്ളത് വേറെ എന്തെങ്കിലും വേണോ ആ ഫോട്ടോ ഉണ്ട് ഫോട്ടോ ഉണ്ട് ഫോട്ടോ മാത്രം മതിയോ അതേയല്ലേ ഇപ്പോൾ നമ്മൾ ഇപ്പം അതിൽ മിനിമം ബാലൻസിൻ്റ എങ്ങനെയാണ് പരിപാടി ആ ഇതിപ്പം സേവിങ്ങ്സിൻ്റെ തന്നെയല്ലേ അതെയല്ലേ ഈ ഇപ്പം രണ്ടായിരം നമ്മൾക്ക് എടുക്കാൻ പറ്റുമോ പിന്നെ അല്ല അത് ആ ഇപ്പോൾ അല്ല അത് ആ പൈസ അപ്പം നമുക്ക് എടുത്ത് ഇപ്പം രണ്ട് ദിവസത്തിന് ഉള്ളിൽ തിരിച്ച് അങ്ങനെ ഇടാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ആ ആ ആ ആ ആ ആ അതെ അല്ലെ അപ്പം കുഴപ്പം ഇല്ല ആ ഞാൻ ചോദിച്ചുയെന്ന് മാത്രം നമ്മളിപ്പം പൈസ ഇട്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എടുക്കുക പിന്നെ ഇതിൽ ഇപ്പം എ ടി എം കാർഡിൻ്റെ ഒരു ഇത് ഇല്ലെ ആ ചെക്ക് ചെക്ക് വേണം നിർബന്ധം ഇല്ല നമ്മൾക്ക് എ ടി എം കാർഡ് മാത്രം മതി പിന്നെ ആ നമ്മൾക്ക് ഈ ഗൂഗിൾ പേ ഒക്കെ തുടങ്ങാനെ ഞാൻ അപ്പം അതിന് ആയിട്ട് മെയിൻ ആയിട്ട് ഇപ്പം അക്കൗണ്ട് എടുക്കണത് ഇപ്പം എനിക്ക് അക്കൗണ്ട് ഒന്നും ഉണ്ടായിരിന്നില്ല എല്ലാവരും പൈസ ഇപ്പം ഓൺലൈൻ ഒക്കെ ആണല്ലോ തരണത് അപ്പം നമ്മൾക്ക് ഇത് വച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ ആ ശരി മാഡം എന്നാൽ ഇപ്പം ഞാൻ ഫോട്ടോയും ഇതാ പാൻ കാർഡും തരാം പിന്നെ ഇനി ഇപ്പം ഇപ്പോൾത്തന്നെ നമുക്ക് അക്കൗണ്ട് എടുത്തുകൂടെ

ആ ഓക്കെ എന്നാൽ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മാഡം ഓക്കെ